പ്രാദേശിക കോളങ്ങളിൽ പ്രാദേശികവാർത്തകൾക്കാണ് പ്രാമുഖ്യം എല്ലാ പത്രങ്ങളും കൊടുക്കാറുള്ളത് നമ്മളിവിടെ മെയിനായിട്ടുള്ള പത്രം മലയാള മനോരമ മാതൃഭൂമി ദീപിക പിന്നേ ഉള്ളത് മംഗളം ദേശാഭിമാനി എന്നിവയൊക്കെയാണ് ദേശാഭിമാനി പാർട്ടിയുടെ പത്രമാണ് അതിൽ പാർട്ടി വാർത്തകൾക്കാണവർ പ്രാമുഖ്യം കൊടുക്കുന്നത് അതിൽ അവരുടെ അവർ പാർട്ടി നടത്തുന്ന സാംസ്കാരിക പരിപാടികളുടെ പ്രാദേശികവാർത്തകൾ പ്രാദേശിക പേജിൽ കൊടുക്കുന്നു മനോരമ ദീപിക മാതൃഭൂമി ഇവ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല രീതിയി ൽ ബാക്കി അവർ ഓർഗനൈസ് അവരൊരു ഇൻസ്റ്റിട്യൂഷണലായിട്ടുള്ള ഇതല്ലല്ലോ മൊത്തം ആരു ചെയ്താലും അവരുടെ എല്ലാം ന്യൂസ് കൊടുക്കുന്നുണ്ട് നമ്മളെ പള്ളികളിലുള്ള ആഘോഷ പരിപാടികളിലെ അല്ലേൽ അമ്പലങ്ങളിലുള്ള ആഘോഷപരിപാടികളിലെ ഏതെങ്കിലും ക്ലബ്ബുകൾ അല്ലേൽ ലൈബ്രറികൾ അല്ലെങ്കിലെന്തെങ്കിലും സ്വാശ്രയ സംഘങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ സാംസ്കാരിക പരിപാടികൾ കാര്യങ്ങൾ ന്യായമായ രീതിയിൽ തന്നെ പത്രത്തിൽ കവറ് ചെയ്യാറുണ്ട് കൂടുതലും ചെയ്യുന്നത് ഈ സാംസ്കാരിക ഇതിൽ പെടുന്നതാണല്ലോ മതപരമായ കാര്യങ്ങളും അതിനെ അതിലായിരിക്കാം അതിൽനിന്നായിരിക്കും കൂടുതലും പരിപാടികളെപ്പോഴുമുള്ളത് പിന്നെ കൂടുതൽ കവർ ചെയ്യുന്നത് ക്ലബ്ബുകളുടെയൊക്കെ പരിപാടിയാണ് പിന്നെ സ്കൂളുകളിലും കോളേജുകളിലുള്ള ക്ലബ്ബുകളുണ്ടല്ലോ അവരെ ഇപ്പം നേച്ചറൽ ക്ലബ്ബു പോലുള്ള പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത് അതൊക്കെ പത്രങ്ങൾ കവറ് ചെയ്യാറുണ്ട് മെയിനായിട്ട് എനിക്കിപ്പോൾ ഈ അടുത്തയിടയിൽ പറയാൻ പറ്റുന്നത് കഴിഞ്ഞ ദിവസം മനോരമയിൽ വന്ന ബാലജനസഖ്യത്തിൻ്റെ പരിപാടിയുടെ കാര്യങ്ങൾ അത് അവരാണതിന് നേതൃത്വം വഹിക്കുന്നതെങ്കിൽക്കൂടി അതിന് കുഴിമറ്റത്ത് നടന്ന അവരുടെ മത്സരങ്ങളുടെ കാര്യങ്ങളൊക്കെയവർ നല്ല രീതിയിൽത്തന്നെ പത്രത്തിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളത് പെട്ടെന്നൊരോർമ്മയിൽ വരുന്ന വേറെ കാര്യങ്ങളില്ല അത് മാത്രമേ ഞാനോർക്കുന്നുള്ളൂ